ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ളൊരാളുമായി നിങ്ങൾ എനിക്ക് എനിക്കെന്ന് വെച്ചാൽ ഒരുപാട് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യമൊക്കെ വളരേ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാണത് നമ്മള് സ്ട്രെസ്സ് ചെയ്യേണ്ടി വരും ഒന്നും ജോലി ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ളൊരു മനസ്സേ ഉണ്ടാവില്ല അയാളോടൊപ്പം ജോലി ചെയ്യാൻ അവിടെ നിൽക്കാൻ തന്നെ നിൽക്കാൻ തന്നെ പറ്റാതാകും എങ്കിൽ പോലും നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോള് ചെയ്ത് നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ദൃഢമായൊരു നിശ്ചയിച്ച് അവരോടൊപ്പം ജോലി ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അതുകൊണ്ടുതന്നെ മാനസികമായിട്ടും നമ്മളൊരുപാട് സ്ട്രെഗ്ത്ത് കൈവരിക്കേണ്ട ഒരു സമയം തന്നെയാണത് ആ ഒരു സന്ദർഭം വളരേ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും നമ്മളത് ചെയ്യണം നമ്മള് ജോലി മാറ്റിവെച്ച് നമ്മൾക്ക് വേറൊന്നില്ലല്ലോ അതുകൊണ്ടുതന്നെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യേണ്ടി വന്ന ഒരാളെ ഇഷ്ടമല്ല എന്നുള്ളൊരു പേരിൽ നമ്മൾ ആ ജോലി ഇട്ട് വരേണ്ടി വരുന്ന ഒര് അവസ്ഥ ഒരു അത് വലിയ ഒരു നല്ല കാര്യമൊന്നുമല്ല നമ്മൾക്ക് നമ്മുടെ ജോലിയാണ് നമ്മുടെ ജോലിയില് കോൺസെൻട്രയ്റ്റ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടി നമ്മളത് ചെയ്ത് കഴിഞ്ഞേ നമ്മള് ഉള്ളൂ അല്ലാതെ മറ്റൊരാളുടെ കൂടെ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് പിന്മാറുന്നത് വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടുതന്നെ അയാളോടൊപ്പം ജോലി ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട അന്നേരം നല്ല രീതിയിൽ തന്നെ നല്ലൊരെളിമയിൽ സംസാരിക്കുകയും നമ്മൾക്ക് ഇഷ്ടക്കേട് കാണിക്കാതെ നല്ല രീതിയിൽത്തന്നെ പോയാലും നമ്മളെ ജോലിയിലാണ് അത് എഫ്ഫക്ട് ചെയ്യുക ഇപ്പം നമ്മളതിഷ്ടമില്ലായെന്ന് പറഞ്ഞാൽ നമ്മളെ ജോലിയെ എഫ്ഫക്ട് ചെയ്യും അതുകൊണ്ട് ജോലി നന്നായിട്ട് ചെയ്യണമെങ്കില് അവരോടൊപ്പം നല്ല നല്ല രീതിയില് സംസാരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ഒരു ഫ്രണ്ട്സിനെ പോലെ കണ്ട് നമ്മളത് ചെയ്യുക പരിഹരിച്ചതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നമ്മള് അവരോടൊപ്പം നല്ല രീതിയിൽ പെരുമാറി നമ്മുടെ മനസ്സ് തന്നെ മാറ്റി ഇപ്പോൾ നമ്മുടെ മനസ്സ് മാറ്റിയാൽത്തന്നെ നമ്മൾക്കൊരുപാട് ഒരു സ്വസ്ഥത വരുമല്ലോ അപ്പോൾ നമ്മുടെ ജോലിയും നല്ല ഈസിയാവും